ഞാനൊരുപാട് നാളായിട്ട് ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചതായിരുന്നു മൈസൂർ പാക്ക് എൻ്റെ ഏട്ടൻ്റെ മോളൊക്കെ വളരെ ഈസിയായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു ചിലപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കോം ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഒരു പരുവം ശരിക്കും മനസ്സിലാവില്ല ചിലപ്പം ഞാനൊരിക്കൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലമാവ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴ്ത്തേക്കും അതൊക്കെ കരിഞ്ഞുപോയി അതിൻ്റെ ആ ഒരു കറക്റ്റ് മൂപ്പിൽ അത് എടുക്കാനും അതൊക്കെ പഠിക്കണം അത് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല ഞാൻ എപ്പോഴും പരാജയപ്പെട്ടു പോവാണ് അപ്പോൾ ശ്രമിക്കും ശ്രമിച്ചു നോക്കി ഒരു പ്രാവശ്യം മാത്രമെ ശ്രമിച്ചു നോക്കിയിട്ടുള്ളൂ വീണ്ടും വീണ്ടും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ആ മൂപ്പ് കറക്റ്റ് എത്രയായിട്ടും മനസ്സിലാകുന്നില്ല പിന്നെ അതുപോലെ ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണിനെ പറ്റി പറയാണേങ്കിൽ ആ ചെമ്മീൻ ഒന്നാമത് അത് ശരിക്ക് ക്ലീൻ ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല എല്ലാവരും പറയും അതിൻ്റെ എന്തോ ഒരു കറുത്ത സാധനം വലിച്ചെടുക്കണം അതെനിക്ക് ഇന്നുവരെ അത് ശരിയായിട്ടില്ല പിന്നെ ആണെങ്കിൽ റൈസ് എപ്പോഴും എനിക്ക് വെച്ചാൽ വെന്തുപോവോ ചീഞ്ഞ് പോവോ ഒടഞ്ഞു പോവോ എന്നുള്ള ഒരു പേടി കാരണം അതിനും എനിക്ക് മെനക്കെട്ടിട്ട് ആവുന്നില്ല പക്ഷേ നല്ല ആഗ്രഹുണ്ട് ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കീട്ട് മക്കൾക്കൊക്കെ കൊടുക്കണം എന്നെല്ലാം ഉണ്ട് പക്ഷേ ഇത് പരാജയപ്പെടുമോ എന്നുള്ള ഒരു പേടി തന്നെയാണ് ഒന്നാമത് അപ്പം സാധാരണ കഴിക്കുന്നവരും ഞാൻ ബിരിയാണി കഴിക്കാത്ത ആളാണ് അപ്പോൾ കുട്ടിക്കൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ അവർ ഇതിൽ മുന്നേ ബിരിയാണി കഴിച്ചിട്ട് നല്ല രസമുള്ള ബിരിയാണിയാണ് കിട്ടിയിട്ടുണ്ടായതെങ്കിൽ ഞാൻ ഈ പൊട്ടത്തരം ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നും ശരിയായില്ലെങ്കിൽ എന്താണ് ചെയ്യുക അവർക്ക് ഇഷ്ടമയിട്ടില്ലെങ്കിൽ വെറുതെ കുട്ടികളുടെ മുന്നിൽ ഞാൻ നാണം കെടൽ മാത്രമെ ഉണ്ടാവുള്ളൂ അതാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് എപ്പഴാണോവോ ഞാൻ ഉണ്ടാക്കിക്കൊടുക്കുന്നത് ചെമ്മീനിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ എൻ്റെ മൈസൂർ പാക്കും എന്നെങ്കിലും ശരിയാവുമായിരിക്കും എപ്പോഴെങ്കിലും ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു